അപ്പോൾ ഉത്സവങ്ങൾ ഒക്കെയായിട്ട് നമ്മൾ അതായത് ഇപ്പം വെള്ളൂർക്കാവ് ഉത്സവം തിരുനെല്ലി ഉത്സവം ഇപ്പം അതിനൊക്കേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാം നല്ല രീതിയിലുള്ള വിഗ്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അത് നല്ലൊരനുഭവാണ് അപ്പം ദൈവത്തിനെക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ അധികം പൈസേന്നും അങ്ങനെ വാങ്ങാറില്ല കാരണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പൈസ വാങ്ങിയാൽ നമുക്ക് ഇപ്പം എന്തായ്യും നമ്മളൊരു വിശ്വാസ പ്രകാരം നമ്മളങ്ങനെ കൊടുക്കുമ്പോൾ അമ്പലങ്ങളിലാണെങ്കിലും ഇപ്പം പള്ളികളിലാണെങ്കിലും ഓരോ മത ആചാര ചടങ്ങ് ആണെങ്കിൽ തന്നെ നമ്മളങ്ങനെ ഒരു വില പേശലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഗ ഗ എന്താ പറയാ ഗണേശ ചതു ചതുർഥി അങ്ങനത്തേനൊക്കെ നമ്മൾ നല്ല രീതിയിലുള്ള വിഗ്രഹങ്ങൾ ഇപ്പോൾ ഗണപതിൻ്റെ നല്ല രീതിലുള്ള വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇപ്പം അതിനും നമ്മൾ ഓവറ് പൈസ വാങ്ങാറില്ല കാരണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അതൊക്കെ നമ്മളൊരു ദൈവത്തിൻ്റെ ഒരിതായിട്ടാണ് വിടുന്നത് അപ്പം ദൈവം നമുക്ക് ആ പൈസ തരുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ വേണ്ടീട്ടാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കാറുണ്ട് ആ അപ്പൊന്നാൽ എന്താ പറയാ ഓരോ വിഗ്രഹം ഉണ്ടാക്കുമ്പോഴും നമുക്കിപ്പോൾ ദൈവം അടുത്തിരിക്കുന്ന പോലെയൊക്കേയായിട്ടാണ് തോന്നുന്നത് ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളതു പോലെയൊക്കെയാണ് തോന്നാറ് ഇപ്പോൾ ഗണപതിൻ്റെ ആണെങ്കിലും ഇപ്പോൾ മഹാവിഷ്ണുൻ്റ ആണങ്കിലും കൃഷ്ണവിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം നല്ല രീതിയിലുള്ള വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ദൈവം നമ്മുടെ അടുത്തുന്ന് പോകുന്ന അത് ഇപ്പോൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ അടുത്ത്ന്ന് ദൈവം അവരടുത്തേക്ക് പോകുന്ന പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട് നല്ലൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ദൈവം ഇല്ലാത്ത പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഇടയ്ക്ക് ചില സമയങ്ങളിൽ നമ്മുടെ മയിൻ്റെക്കെ മാറി പോകാറുണ്ട് അപ്പം ഇങ്ങനേക്കെയാണ് എനിക്ക് തോന്നാറ്